എന്നിൽ ഏറ്റവും കൂടുതല് സന്തോഷമുണ്ടാക്കുന്ന കാര്യം നമ്മൾ നല്ല രീതിയിൽത്തന്നെ ജോലി ചെയ്യുകയും അതുപോലെ തന്നെ ഹാഡ്വർക്ക് ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള വേതനം കിട്ടുന്നതാണ് എനിക്കേറ്റവും സന്തോഷമുള്ള കാര്യം ഏത് കഷ്ടപ്പാടുള്ള ജോലിയും നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള വേതനം കിട്ടുമ്പോൾ നമ്മൾ ഒരുപാട് സന്തോഷവാന്മാരാകുന്നു അതുപോലെ ജോലിയെല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ വീട്ടിലെ അംഗങ്ങൾ നമ്മളെ വളരെയധികം സ്നേഹത്തോടെ തന്നെ കാണുകയും നമുക്ക് വേണ്ടി ആഹാരങ്ങൾ പാകം ചെയ്തുതരികയും ചെയ്യുന്നു അതോടുകൂടിത്തന്നെ നമുക്ക് ജോലിയില്ലാത്ത സമയങ്ങളിൽ അവരുമായി മറ്റ് വിനോദയാത്രകൾ പോകുകയും അവരെ സന്തോഷിപ്പിക്കുകയും അതിലൂടെ നമ്മൾ ഒത്തിരി സന്തോഷിക്കുകയും ചെയ്യുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കേറ്റവും കൂടുതലായ് സന്തോഷം കണ്ടെത്തുന്ന കാര്യം അതൊക്കെയാണ് നമ്മളെത്ര കഷ്ടപ്പെട്ട് ജോലി ചെയ്താലും കൃത്യമായി നമുക്കതിനനുസരിച്ചുള്ള വരുമാനം കിട്ടുകയും ആ വരുമാനത്തിൽത്തന്നെ നമ്മൾ നമ്മളെയും നമ്മുടെ കുടുംബത്തെയും സന്തോഷിപ്പിക്കുകയും കുടുംബത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുമ്പോഴാണ് നമുക്കേറ്റവും കൂടുതല് സന്തോഷം കിട്ടുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്